അത് നമ്മൾ ഒരു ഓരോ കലാരൂപവും കലാ എന്താ കരകൗശലത്തിൻ്റെയും അതായത് ആ നാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ടായിരിക്കും എല്ലാ നാട്ടിലും ഓരോ വ്യത്യസ്ത ഇനം കരകൗശല ഇനവും കായികവും എല്ലാം ഉണ്ടാവും അപ്പോൾ ആ ഒരു കായിക ഇനം അല്ലെങ്കിൽ കരകൗശലം ആ ഇതിനെ സംബന്ധിച്ചിട്ടായിരിക്കും അതിനെ നമ്മൾ തിരിച്ചറിയുന്നത് ഓരോ നാടിനും അതിൻ്റേതായ കരകൗശലവും കായികവും ഒക്കെയുണ്ട് കായികവിനോദം അങ്ങനെ കുറേ സാധനമുണ്ട് അതിനെ അനുബന്ധിച്ചിട്ടായിരിക്കും നമുക്ക് ആ നാട് ഇന്ന നാടാണ് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഓരോ ഓരോ വ്യക്തിക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും എല്ലാ നാട്ടിനും വെവ്വേറെ കലാരൂപവും എല്ലാം ആയിരിക്കും എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കില്ല എല്ലാം നല്ല വ്യത്യാസമായിരിക്കും